ചേച്ചി ചേച്ചി ഞാൻ ഇന്ന് അവിടെ ബുക്ക് എടുക്കാൻ വന്നതായിരുന്നു പക്ഷേങ്കിൽ എനിക്ക് വളരെ കഷ്ടപ്പാടാണ് തോന്നിയത് ബുക്ക് എടുക്കുമ്പം ഒരു അടുക്കും ചിട്ടയുമില്ലാതെ ആണ് എല്ലാം അടുക്കി വച്ചിരിക്കുന്നത് ബുക്കൊക്കെ അത് അപ്പോൾ വളരെ സമയം നഷ്ടമായിട്ട് തോന്നി

പക്ഷെ ചേച്ചി എനിക്ക് എന്താണ് പറയാൻ ഉള്ളതെന്ന് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെതിരെ ആയിട്ട് കർശനമായിട്ടുള്ള ഒരു നടപടി എടുത്താൽ മാത്രമേ അവർ മര്യാദക്ക് ബുക്ക് ഒക്കെ അടുക്കി വയ്ക്കുകയുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ അവർ അങ്ങനെ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം ഒരു വായനക്കാരൻ ചെയ്യുന്നതിൻ്റെ സ്ഥലം മറ്റുള്ള വായനക്കാർ അനുഭവിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾക്ക് ഒരുപാട് സമയത്തിന് അത്യാവശ്യമുള്ള ആൾക്കാരാണ് അപ്പോൾ സമയം നഷ്ടം വല്ലാതെ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ബുക്ക് തപ്പി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് അത് അതിന് പകരമായിട്ട് മര്യാദക്ക് ബുക്ക് ഒക്കെ അടുക്കി വച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇവിടെ വന്ന് ഏതൊരു വായനക്കാർക്കാണെങ്കിലും വന്ന് ബുക്ക് എടുത്ത് പോകാവുന്നതാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അതേ ചേച്ചി അത് ചേച്ചിയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊ മനസ്സിലാവുന്നുണ്ട് അത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ചേച്ചിനെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല പക്ഷെ ഇതിന് എതിരായിട്ട് ഒരു മര്യാദക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനുള്ള ഫലം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് മാത്രം ആണ് ഞാൻ പറഞ്ഞത് ആ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവ്വാർക്കും നല്ലതാണ് എന്ന് വച്ച് പറഞ്ഞതാണ് സമയം നഷ്ടവുമില്ല അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അതെ ചേച്ചി അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അത് വയ്ക്കുമെന്നും സ്റ്റാഫിനെ വയ്ക്കും എന്നൊക്കെ മനസ്സിലായി ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയ ഒരു ഈ ലൈബ്രററിയിൽ കണ്ട ഒരു പ്രശ്നം ഇവിടെ ബോധിപ്പിച്ചെന്നേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ